ആ ഹലോ ഇത് പാലക്കാട് ടൂറിസം സെൻ്ററല്ലെ ആ ആ ആ ഞാൻ പാലക്കാട് അവിടെ ഒന്ന് ഒരു ഫൈവ് ഡേയ്സിന് എൻ്റെ ഒരു ഓഫീസിൻ്റെ ഒരു ട്രാവൽ വിസിറ്റാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ എനിക്ക് എനിക്ക് നിങ്ങളുടെ പാക്കേജസുകളെ പറ്റിയൊന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ ആ

ആ

ആ ഫുഡ് ഞങ്ങൾക്ക് കൂടുതല് സ്യൂറ്റബിൾ ആകുന്നത് നിങ്ങള്ക്ക് അവിടെനിന്ന് നിങ്ങളുടെ പാക്കേജസില് ചേർക്കുന്നതായിരിക്കും ആ ഓക്കെ പിന്നെ ഞങ്ങള്ക്ക് ഞങ്ങളൊരു ഫിഫ്റ്റി സംതിങ് ആളുകള് വരും പിന്നെ അപ്പോള് ഞങ്ങള്ക്ക് വേണ്ടതൊരു എ സി ബസ്സാണ് അതൊന്ന് നോക്കാമോ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഏത് ബസ്സാണ് അന്ന് അവൈലബിളുള്ളതെന്ന് ഒന്ന് നോക്കാമോ

ആ ഓക്കെ ആ പിന്നേ ഇതിൻ്റെ റേറ്റ് ഇപ്പോള് എങ്ങനെയാണെന്നാണ് പറഞ്ഞത് ഓക്കെ ഓക്കെ ആ പിന്നെ ഞങ്ങള്ക്ക് ഞങ്ങളുടെ യാത്ര ഗൈഡായിട്ട് ആരെങ്കിലും നിങ്ങളുടെ ആ വേറൊന്ന് വേറെ എന്താണ് ഞങ്ങള്ക്ക് പോകേണ്ടത് ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഈ മാസം ഓക്കെ ആ അ എന്നിട്ടൊന്ന് ഷെഡ്യൂൾ ചെയ്യൂ കേട്ടോ ഓക്കെ ഓക്കെ